ഹലോ ഹലോ ആരാ

ആ ഓക്കെ ഓക്കെ ഓർക്കുന്നുണ്ട് ആ ആണല്ലേ നിങ്ങൾ എത്ര പേരാണ് രണ്ട് പേരാണോ

ആ നിങ്ങൾ ഇവിടെ എത്തിയായിരുന്നോ എത്തിയില്ല എന്നത്തേനാ എത്തുന്നത് നിങ്ങൾ ആ ഓക്കെ ഓക്കെ ആ നിങ്ങൾക്ക് ഇപ്പോൾ ആ ആ റൂമ് രണ്ടു റൂമാണ് അതുപോലെ ഒരു കിച്ചൺ ഉണ്ട് നിങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കി തന്നെ കഴിക്കാം എല്ലാം ഉണ്ട് ലൈറ്റ് സൗകര്യങ്ങൾ എല്ലാം ഉണ്ട് രണ്ട് റൂമാ രണ്ട് റൂമേ ഉള്ളു റൂമ് രണ്ടാണ് പിന്നെ ഒരു ഹോള് പിന്നെ ഒരു കിച്ചൺ ഉണ്ട് നിങ്ങൾക്ക് ഫുഡ് ഒക്കെ അവിടെത്തന്നെ ഉണ്ടാക്കി കഴിക്കാവുന്നതേ ഉള്ളൂ ആ അതെ കുറവാണേ ആ റെന്റ് നമ്മുടെ മന്ത്ലി ഒരു ഏഴായിരം ആണ് നിങ്ങൾ എത്രയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഓക്കേ ഞങ്ങൾ ഇപ്പോൾ ഏഴായിരത്തിനാണ് ഞങ്ങൾ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും നിങ്ങൾ എത്തുന്നതിന് മുന്നെ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ഞങ്ങൾ ഒന്ന് ഞാൻ ഞങ്ങൾ ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് അറിയിച്ചുകൊള്ളാം അഡ്വാൻസ് തരേണ്ടി വരും അഡ്വാൻസ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് അത് ആദ്യം തന്നതിന് ശേഷമായിരിക്കും പിന്നെ ആ അത് തിരിച്ച് തരത്തില്ല ഇല്ല ഇല്ല കാരണം നിങ്ങൾ അഡ്വാൻസ് നമ്മൾ ഇപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്താണ് നിങ്ങൾക്ക് ഇപ്പോൾ അത് തരുന്നത് റെന്റിന് അപ്പോൾ പിന്നെ അത് നമുക്ക് ഇപ്പോൾ അതിനുള്ളിൽ വേറെ ഒരാൾക്ക് ഇപ്പോൾ കൊടുക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് അങ്ങനെ തിരിച്ച് തരത്തില്ല

ആ അതെ അതെ വേറെ നിങ്ങളുടെ കൂടെ നിങ്ങളുടെ കൂടെയല്ല ഇതിന് അടുത്ത് തന്നെ വേറെ പഠിക്കുന്ന കുട്ടികളുണ്ട് അതുപോലെ വർക്ക് ചെയ്യുന്നവരും ഉണ്ട് വൈഫൈ സൗകര്യങ്ങൾ ഇല്ല അങ്ങനെത്തെ കാര്യങ്ങളൊന്നും ഇല്ല അതൊക്കെ നിങ്ങൾ തന്നെ ആ ഇല്ല ഞങ്ങൾക്ക് അങ്ങനെ ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല അത് നിങ്ങൾ തന്നെ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം മ്മ്

ആ അതെ ഒരു നമ്പറ് തരാം നിങ്ങൾ വിളി ഒന്ന് കോണ്ടാക്റ്റ് ചെയ്താൽ മതി എത്തുന്ന സമയം അപ്പോൾ ഞങ്ങൾ അങ്ങനെ മീറ്റ് ചെയ്യാം ആ ആ എത്തിയതിന് ശേഷം നിങ്ങൾ എന്നെ വിളിച്ചാൽ മതി ആ ഈ നമ്പറിലോട്ട് ഇങ്ങോട്ട് വിളിച്ചാൽ മതി അപ്പോഴത്തേനും മറ്റെ നമ്പര് തരാം അപ്പോൾ അതുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്ത് വീട്ടിലോട്ട് പോവാം ക്ലീനിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഇനി വന്നാൽ മതി ഒരാഴ്ച്ച ആകുമല്ലോ വരാൻ ഓക്കെ ഓക്കെ ആ എന്നാൽ ആ ശരി ആ ഓക്കെ ഓക്കെ മ്മ് ആ ഓക്കെ ആ ഓക്കെ ആ ആ ഓക്കെ ശരി ശരി ആ ഓക്കെ